ഇപ്പേള്ള നമ്മൾ ചെടി വളർത്തുന്നത് നമ്മൾ കൂടുതലായിട്ട് കുറേ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെയാണെന്ന് ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ആദ്യം മുതലേ ചെയ്യുന്ന സംഭവമാണ് സാധാ ജൈവ വളമിട്ട് കൊടുക്കൽ ജൈവ വളം എന്ന് പറയുമ്പോൾ ചാണകം അല്ലങ്കിൽ പുകയില അങ്ങനെ ചാണകം പുകയില വെള്ളം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് വളങ്ങൾ അതായത് രാസ വളങ്ങളൊക്കെ കെമിക്കൽസ് വളമായിട്ട് നമ്മൾ കുറവാണ് അപ്പം നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് എന്താണ് പറയുക ഈ ചാണകപ്പൊടി വെള്ളം കുറേ ഒഴിച്ചത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് യൂസ് ചെയ്യാറുള്ളത് പിന്നെ അത് പോലെത്തന്നെ ഇതിൻ്റെ വിളവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒഴിക്കണമല്ലോ അത് മാത്രമല്ല നമുക്ക് ഇപ്പം ചൂട് കാലം കൂടെ ആയത് കൊണ്ട് ഇതിൻ്റെ ഈ വേരിന് ചുറ്റും നമ്മൾ തണ് ചൂട് അധികം തട്ടാൻ പാടില്ല കാരണം ഇതിൻ്റെ വേരിലേക്ക് ഡയറക്ട് ആയിട്ട് നമ്മൾ സൂര്യൻ്റെ വെളിച്ചം തട്ടുമ്പോൾ അത് വേഗം വാടിപ്പോവാൻ ചാൻസ് നല്ല കൂടുതലാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യുച്ചാല് ചമ്മലക്കെ ഉണ്ടാവുമല്ലോ ഈ ചമ്മലാ പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചമ്മലെല്ലാം അടിച്ച് വാരിയിട്ട് അല്ലെങ്കിൽ വല്ല കാടെല്ലാം വെട്ടിയിട്ട് അതിൻ്റെ കമ്പൊക്കെ ഇലയൊക്കെ വന്നിട്ട് ആ ഇലയൊക്കെ കൊണ്ട് വന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കും അതിൻ്റെ മൂട്ടിൽ കൂടെ അങ്ങനെ ചെടിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും അപ്പം അതാകുമ്പം എന്താണെന്ന് വച്ചാൽ അതിൻ്റെ വേരിന് ത വെയിലടിക്കില്ല അതാകുമ്പോൾ ആ ഈർപ്പമുണ്ടാകുമല്ലോ മണ്ണിലുണ്ടാകുന്ന ഈർപ്പം അതുപോലെ നിന്നിട്ട് എപ്പോഴും ആ ഒരു കൂളിംഗായിരിക്കും ആ അതിൻ്റെ വേരിൻ്റെ ഭാഗത്തെപ്പൊളൊരു തണുപ്പ് എപ്പോഴും ഫീല് ചെയ്യും അപ്പം നമ്മൾ നനച്ച് കൊടുത്താലാണെങ്കിലും അത് കുറച്ച് നേരത്തേക്കെങ്കിലും കുറച്ച് നേരമെല്ലാം അത് ആ ഒരു ദിവസം മൊത്തം ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു അംശം എപ്പോഴും ആ ഭാഗത്ത് നിന്നിട്ട് എന്താണ് പറയുക ചൂടിന് ഇതിനെ എന്ത് ചെയ്യാം പ്രൊട്ടക്ടറ്റ് ചെയ്യും ഈ ചമ്മലേക്കെ കൊണ്ട് പോയിട്ട് ഇട്ടാൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളമെന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് കുറേ വളം ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇതിൽ ഇങ്ങനെ ഇതിൻ്റെ എന്താണ് പറയുക അടിയിൽ കൂടേ ഇങ്ങനെ ഒഴിച്ചൊന്നും കൊടുക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വച്ചാൽ അത് ഓവറായിട്ട് വളമായാലും ഇതിനെ ബാധിക്കും ഇതിൻ്റെ വിളവെടുപ്പിനെ എല്ലാം ബാധിക്കും അപ്പം നമ്മൾ കുറച്ച് ചാണകപ്പൊടി അത് കുറേ ഡയലൂട്ടാക്കുക വെള്ളത്തിൽ വച്ചിട്ട് അതിനെ നല്ലോണം കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വേണ്ടത് അതും നമ്മളെ ആഴ്ച്ചയിൽ രണ്ടാഴ്ച്ചയിൽ ഒരു വട്ടം രണ്ട് വട്ടം ചെയ്താൽ മതി